എനിക്കും മലയാളത്തിൽ സംസാരിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എങ്കിലും ചില പെട്ടെന്ന് ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്നാവർത്തിക്കേണ്ടിവന്ന് കഴിയുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ട് മലയാളത്തിൽ സംസാരിക്കുമ്പോഴാണെങ്കിൽ എഴുതുമ്പോഴാണെങ്കിൽപ്പോലും ബുദ്ധിമുട്ടുകൾ ഒത്തിരിയുണ്ടായിട്ടുണ്ട് അത് പെട്ടെന്നാകുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എങ്കിലും സമയമെടുത്ത് ആലോചിച്ച് ചെയ്യുമ്പോൾ ആലോചിച്ച് വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം ഒരു കുഴപ്പവുമില്ല എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് വായിക്കുവാനും എഴുതാനും സാധിക്കുന്നുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമേ എനിക്ക് സംസാരിക്കുന്നതിലും എഴുതുന്നതിലും ബുദ്ധിമുട്ട് വരുന്നുള്ളൂ അതെനിക്ക് കൂടുതൽ ഈസിയായിട്ട് തോന്നിയിട്ടില്ല സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തന്നെയാണ് ഫീല് ചെയ്യുന്നത് എങ്കിലും ചില സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടില്ലാതെ സംസാരിക്കുമ്പോൾ എനിക്കത് ഈസിയായി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുമ്പോൾ എനിക്കത് കൂടുതൽ ഈസിയായി തന്നെ അത് ഹാൻഡ് ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാനും അതുവഴി എനിക്ക് സാധിക്കുന്നുണ്ട്